അതെ ആ എന്താണ് ടീച്ചർ എന്തുപറ്റി അത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ട് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം വീണ്ടും തുടങ്ങിയോ അത് ഞാൻ ടീച്ചറേ ഞാൻ പറഞ്ഞാൽ അവന് തീരെ അനുസരിക്കുന്നില്ല അതാണ് ഞാൻ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഞാൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അവന് അവൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല അപ്പം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല അച്ഛനെ ഉള്ളൂ പിന്നെയും കുറച്ചുകൂടെ പേടിയുള്ളൂ പിന്നെ ഇപ്പം ഇവിടെ വേറെ ആരും പറഞ്ഞ് കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അവന് ഒരു പേടിയില്ല അതാണിപ്പോൾ ഉണ്ടാവുന്നത് ഇപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാവുമല്ലേ കൗൺസിലിംഗ് പോലെ ഇല്ല അവരൊന്നുമില്ല പിന്നെ മ അമ്മാവന്മാരൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ അവർ പറഞ്ഞാലും പേടിയുണ്ടെങ്കിലും പോലും അവനെ അത് അപ്പം കേൾക്കും പിന്നെ അത് അങ്ങനെ പിന്നെ ഇതുതന്നെ തുടരുവാണ് അതാണ് വരു ഇതിവിടുന്ന് പറയുമ്പം അവൻ അൻ ചെയ്യില്ല അങ്ങനെ ഇങ്ങനെയാണ് പറയും ആ ഇനി കുഴപ്പമില്ല എന്നൊക്കെ പറയും പിന്നെ സ്കൂളിൽ എത്തുമ്പോൾ പിന്നെയും കൂട്ടുകാരൊക്കെ കിട്ടുമ്പോൾ പിന്നെ അവർക്കും അങ്ങോട്ട് പോവുകയാണ് അതാണ് ഉണ്ടാവുന്നത് തോന്നുന്നു വീട്ടിൽ അത്ര പ്രശ്നമായിട്ട് ഒന്നും തോന്നുന്നില്ല ആ ബുക്ക് എടുക്കാൻ ഒക്കെ ഭയങ്കര മടി തന്നെയാണ് പക്ഷേ എങ്കിലും എക്സാം ടൈം ഒക്കെ ആവുമ്പോൾ ബുക്ക് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക ഒക്കെ ചെയ്യും മ് എന്നാലും പക്ഷേ ഇവിടുന്ന് നമുക്കറിയില്ലല്ലൊ സ്കൂളിൽ പോവുമ്പോളല്ലേ നമ്മൾ അത് നമ്മൾ കാണുന്നില്ലല്ലോ അപ്പം അവരൊന്ന് അവർ കൂട്ടുകാരന്മാരും ഒക്കെ ഒന്നിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ആ ഇല്ലില്ല പേസ്റ്റ് ഒന്നും കൊടുക്കില്ല എന്നാൽ ഞാൻ ആ ആ ആ ഞാൻ നാളെ സ്കൂളിൽ വരാം എന്നിട്ട് നമുക്കത് എന്താണെന്ന് അവിടെ ഇരുന്നിട്ടൊന്ന് നോക്കാം ആ ഓക്കെ ഓക്കെ